സ്ത്രീകൾക്ക് മൽസ്യബന്ധനത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ആ മൂലം പ്രവർത്തികളിൽ വിവിധ രീതിയിൽ സഹകരിക്കാവുന്നതാണ് മൽസ്യബന്ധനത്തിന് പോവുന്നവരുടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കുടുംബത്തിൽ നോർമലി സ്ത്രീകളാണ് അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റു വസ്ത്രവും മറ്റു സാങ്കേതിക സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് നോർമലി കുടുംബത്തിലെ സ്ത്രീകൾ തന്നെയാണ് അവർ മത്സ്യബന്ധനത്തിന് ശേഷം ഈ മൽസ്യം എത്തിച്ചു കഴിഞ്ഞാൽ അത് വിപണത്തിനായി പലപ്പോഴും അധിക ശതമാനവും സ്ത്രീകളാണ് കൊണ്ട് പോകാറുള്ളത് എങ്കിൽ തന്നെയും മത്സ്യബന്ധനത്തിന് നേരിട്ട് ഏർപ്പെടുന്ന സ്ത്രീകളും കുറവല്ലാതെ ഉണ്ട് പല രീതിയിലുള്ള മൽസ്യബന്ധന പ്രവർത്തികൾ ഉണ്ട് ബോട്ടിൽ പോയി ചെയ്യുന്നതും ഇല്ലെങ്കിൽ നമുക്ക് കരയ്ക്ക് നിന്ന് മത്സ്യബന്ധനത്തിനും ഇല്ലേൽ മൽസ്യബന്ധന ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതും അങ്ങനെ വിവിധ മേഖലകളിൽ മൽസ്യബന്ധനം നമുക്ക് സാധ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ പല രീതിയിലും സ്ത്രീകൾക്കും ഇതേ മൽസ്യബന്ധനത്തിൽ സഹായിക്കുകയും ഇല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ചെന്നു സഹകരിക്കുകയും ചെയ്യാവുന്നതാണ് മൽസ്യബന്ധനത്തിന് കടലിൽ പോകുന്ന സ്ത്രീകളുടെ നമ്മുടെ അടുത്ത കാലത്ത് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഈവൻ ബോട്ടോടിച്ച് പോലും മത്സ്യബന്ധനത്തിന് വേണ്ടി കടലിലേക്ക് പോകുന്നത് നമ്മൾ ചുരുക്കം ചിലരിൽ നമ്മൾ ദൃശ്യമായിട്ടുണ്ട് അതുകൊണ്ട് മൽസ്യബന്ധനത്തിന് സ്ത്രീകൾക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് വെറും മിഥ്യാ ധാരണയാണ് സ്ത്രീകൾക്കും പോകാവുന്നതാണ് സാധാരണ ഗതിയിൽ കായിക ക്ഷമത കൂടുതൽ ആവശ്യമുള്ളതും ആയാസകരമായ ജോലി ആയതിനാലും സ്ത്രീകൾ പൊതുവെ അതിൽ വ്യാപരിക്കാറില്ല എന്ന് ഉള്ളത് വസ്തുതയാണെങ്കിലും ചുരുക്കം ചിലരെങ്കിലും ആ പ്രവർത്തികളിൽ ഏർപ്പെടാറുണ്ട് അതുപോലെ മൽസ്യ ബന്ധന മാർഗ്ഗങ്ങളിൽ സിംപിളായും വിനോദകരമായി ഉള്ള ചൂണ്ട ഇടൽ പോലുള്ള മേഖലകളിൽ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ അതൊരു ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ വിപണന രംഗത്ത് സാധാരണയായി കൂടുതലും സ്ത്രീകൾ പ്രവർത്തിക്കാറുണ്ട് ആ രംഗത്ത് സ്ത്രീകളുടെ പ്രവർത്തനം എടുത്ത് പറയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് മത്സ്യബന്ധനവും മൽസ്യ വിപണനവുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയും സ്ത്രീകൾ നല്ല രീതിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് മൽസ്യബന്ധനത്തിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കി നിർത്താൻ പറ്റുകയില്ല ആ മേഖലയിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ പറ്റുകയില്ല എന്ന് ഉള്ളത് എടുത്ത് പറയേണ്ട വസ്തുതയാണ്